എന്നെ ഏറ്റോം കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും സന്തോഷിക്കുന്നത് കാണുമ്പോഴാണ് എനിക്കേറ്റോം കൂടുതൽ സന്തോഷം വരുന്നത് നേരെമറിച്ച് അച്ഛനെയും അമ്മയെയും സങ്കടപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങളാണ് ഞാൻ കാണുന്നതെങ്കിൽ കേൾക്കുന്നതെങ്കിൽ അനുഭവപ്പെടുന്നതെങ്കിൽ ഞാനും അത്രയധികം അല്ലെങ്കിൽ അതിലുപരി സങ്കടപ്പെടുകയാണ് പതിവ് എൻ്റെ അച്ഛനേം അമ്മേനേം ആരെങ്കിലും ദോഷംപറയുന്നതോ മോശമാക്കുന്നതോ എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അവരുമായി ഞാൻ ഏറ്റോം അവരുമായിട്ടാണ് ഞാൻ ഏറ്റോം കൂടുതൽ കലഹിക്കുന്നതും എനിക്ക് വെറുപ്പുളവാക്കുന്നതും എൽ എൻ്റെ അച്ഛനും അമ്മയും ഏറ്റവും പെർഫക്റ്റും അല്ലെങ്കിൽ നല്ല സ്വഭാവമുള്ളവരാണ് എന്ന് ഞാൻ വാദിക്കുന്നില്ല പക്ഷേ അവരെ ആര് എന്ത് പറഞ്ഞാലും എനിക്ക് അത് ഏറ്റവും കൂടുതൽ എന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടുതന്നെ അവർ സന്തോഷവാനാകുക വരാക്കുകയെന്നാണ് എൻ്റെ ഉദ്ദേശം അത് തടസപ്പെടുന്നവരായിരിക്കും എൻ്റെ ജീവിതത്തിലെ എനിക്ക് ഞാൻ ശത്രുക്കൾ എന്ന് വിചാരിക്കുന്നവരും